ഈ മത്സ്യബന്ധനമെന്ന് പറയുമ്പോള് ഒന്നുമില്ലെങ്കില് പാവപ്പെട്ടവര് അല്ലെങ്കില് ഭയങ്കരമായിട്ട് ലോയില് നില്ക്കുന്ന ആൾക്കാരാണ് ഇതിന് കൂടുതലിറങ്ങുന്നത് പ്രത്യേകിച്ചെന്ന് പറയുമ്പോള് അന്നന്ന് പണിക്ക് പോയി അന്നന്ന് ജീവിക്കുന്നവര് ഉദാഹാരണമെന്ന് പറയുമ്പോള് അന്ന് പിടിച്ച മീന് ഇവര് ഇവിടെ കൊണ്ടുവന്ന് ലേലത്തിന് വിറ്റ് അതുകൊണ്ട് അടുത്ത ദിവസം പോയി ചെലവെല്ലാം നടത്തി അന്ത് വിറ്റ് അങ്ങനെ ജീവിക്കുന്നവരാണ് ഇവര് ഇവർക്കെന്ന് പറയുമ്പോള് പലതരത്തിലുള്ള പ്രശ്നങ്ങള് ഇവർ നേരിടും അതെല്ലാം ഇതാക്കി വേണം ഇവർക്ക് പോകണമെങ്കില് ഉദാഹരണമെന്ന് പറയുമ്പോള് ഇവരുടെ പോക്കുവരവ് ചെലവുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാര് നോക്കുകയാണെങ്കില് ഇവർക്ക് ഇതിൽ നിന്ന് അവർക്ക് അത്യാവശ്യം അവർക്ക് ലാഭം കിട്ടും ഇവരുടെ വലയും ചിലപ്പോള് എവിടെയെങ്കിലും തട്ടി കീറിപ്പോകും ഇല്ലെങ്കില് ഇവരുടെ ബോട്ടിനെന്തെങ്കിലും പറ്റും ഇതൊക്കെ ഈ സർക്കാര് സെറ്റാക്കിക്കൊടുക്കുകയാണെങ്കില് ഇവർക്ക് അതിൻറ്റെ ലാഭം കൂടി ഇവർക്ക് കിട്ടും ഇപ്പോള് ഒന്നുമില്ലെങ്കില് ബോട്ട് കൊടുക്കുക അല്ലെങ്കില് ഇവർക്ക് വല മേടിച്ച് കൊടുക്കുക ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങള് ചെയ്യുക അല്ലെങ്കില് ഇവര് പിടിച്ചിട്ട് വരുന്ന മീനിന് അത്യാവശ്യം പൈസ കൊടുത്ത് മേടിച്ച് ഇത് വില്ക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് ചെയ്യുക അല്ലെങ്കില് ഇവർക്ക് സബ്സീഡി അങ്ങനെയെന്തെങ്കിലും ഇപ്പം ഒരു ബോട്ട് ഇതാക്കിക്കൊടുക്കുകയാണെങ്കിലും അവർക്ക് അതിന്റെ ചെലവ് ഇതാക്കേണ്ട ഇല്ലെങ്കില് ഇവർക്ക് പോകണമെങ്കില് ഇവര് സ്വന്തമായിട്ടൊരു ബോട്ട് റെഡിയാക്കി എന്നിട്ട് വേണം ഇവർക്കത് പോകണമെങ്കില് ഇപ്പം ആ സ്ഥാനത്ത് സർക്കാര് ഇതേറ്റെടുക്കുകയാണെങ്കില് ഇവർക്ക് ആ പോയിട്ട് പണിയെടുക്കുക ആ പൈസ ഇവർക്ക് തന്നെ കിട്ടും ഇല്ലെങ്കില് ബോട്ടിന്റെ ചെലവ് ബോട്ടിനിപ്പോള് പോകുന്ന വഴിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് അതിന്റേത് നോക്കണം അങ്ങനെയങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിവർക്ക് പറ്റും അതില്ലാതാക്കാം വലയെന്ന് പറയുന്നത് എവിടെയെങ്കിലും തട്ടി ഇപ്പം എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാല് അത് കീറിപ്പോകും പിന്നെയത് മാറ്റണം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സർക്കാരേറ്റെടുത്ത് നോക്കുകയാണെങ്കില് മത്സ്യബന്ധനമെന്ന് പറയുന്നതൊരു നല്ലയൊരു ഇതായി മാറിയിരിക്കും